കോഴികളെ ബാധിക്കുന്ന ചില രോഗങ്ങളാണ് കോഴിപ്പനി അതിന് മൃഗാശുപത്രിയില് ചെന്ന് മരുന്ന് വാങ്ങിച്ച് കോഴിക്ക് കൊടുക്കണം അല്ലെങ്കിൽ ഇൻജക്ഷനുണ്ട് മൃഗാശുപത്രിയില് ചെന്ന് പറഞ്ഞാല് അവര് വന്ന് ഇൻജക്ഷനെടുക്കും പിന്നെ കുരുമുളകും പാരസെറ്റമോളും ഗുളികയും കൂടെ ഇട്ട് വെള്ളം തോര തോര കോരിക്കൊടുത്താല് കോഴിയുടെ പനി നിന്നും കുറച്ച് മാറിക്കിട്ടും കോഴികളെ ആരോഗ്യത്തോടെ നിലനിർത്താൻ അവർക്ക് വേണ്ടുന്ന തീറ്റ നല്ല രീതിയിൽ കൊടുക്കണം പൂത്തതും പഴകിയതുമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ കോഴിക്ക് കൊടുക്കരുത് പിന്നെ ഇലകള് പച്ചിലകള് പറിച്ച് കൊടങ്കലിൻ്റിലയും ഒക്കെ ഇലകള് അങ്ങനെയുള്ള ഇലകളൊക്കെ കൊടുത്താൽ ഈ കോഴി നി ദിവസവും മുട്ടയിടും അതുങ്ങള്ക്ക് ഒരുവിധപ്പെട്ട അസുഖങ്ങളൊന്നും ഉണ്ടാകത്തില്ല അത് അങ്ങനെ കൂടുതലായിട്ടും വല്ല അസുഖങ്ങളും ഉണ്ടങ്കിൽ മൃഗാശുപത്രിയില് ചെന്ന് മരുന്ന് വാങ്ങിച്ചുകൊടുക്കുക